ഹലോ ഞാൻ ഒരു വാച്ച് ഓർഡർ ചെയ്തിരുന്നു ഞാൻ ഒരു സാംസങ് മോഡൽ വാച്ചായിരുന്നു ആ ഒരു എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു വാച്ചിൻ്റെ വില പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മാസം ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഞാൻ ഓർഡർ ചെയ്ത വാച്ച് ഏകദേശം ഒരു മെയ് അഞ്ചാവുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഓർഡർ ഡേറ്റിൻ്റെ സ്ഥരീകരണത്തിന് വേണ്ടി ഒന്ന് മെസ്സേജ് അയച്ചു നോക്കിയതാണ് അപ്പോൾ ഈ ഒരു ഡേറ്റ് ഏകദേശം ഉറപ്പിക്കാാം എന്നുള്ള രീതിയിലല്ലേ കാരണം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്ക ഉണ്ട് അതായത് ഞാൻ ഇപ്പോൾ ബാക്കി മെയ് അഞ്ചിന് മുന്നേയുള്ള ഡേറ്റുകളുകളിലാണെങ്കിൽ ആരാണ് ആ സമയത്ത് എത്താൻ പറ്റിക്കൊള്ളമെന്നില്ല വാച്ച് സ്വീകരിക്കാൻ കാരണം ബാക്കിയുള്ള തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് വാച്ചിൻ്റെ സ്വീകരിക്കൻ ഞാൻ അവിടെ ഇണ്ടായിക്കണമെന്നില്ല അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചിന് വാച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ വാച്ചിൻ്റെ ഡേറ്റിൽ എനിക്ക് ഒരു മിസ്റ്റേക്ക് വരുന്നത് പോലെ തോന്നി അതായത് ഞാൻ പിന്നെ ഡെലിവറി വരുമ്പോൾ അതിൽ